ആ എന്താണ് ഈ വഴിയൊക്കെ അറിയുമോ എത്ര ആയി ഒര് രണ്ട് മൂന്ന് മാസമായി പറഞ്ഞിട്ട് ഒരു കാര്യം

ഞാൻ നീ മറന്നു വിചാരിച്ചിരിപ്പത് ഞാൻ അന്ന് പറഞ്ഞല്ലോ കാര്യം പറഞ്ഞല്ലോ അപ്പം ആ ഇത് പതിനഞ്ചാറ് ലിറ്റർൻ്റെയാണ് ഇപ്പം വീട്ടിലേക്കും വേണം പിന്നെ തൊടിയുണ്ടല്ലോ തോട്ടത്തിലേക്കും വേണമല്ലോ അപ്പം രണ്ടിനും കൂടീട്ട് വെയ്ക്കാനാന്ന് തോന്നു ആ അല്ലാതന്നെ അവിടേക്ക് തൊട്ടത് തോട്ടത്തിലേക്ക് വേറെയും വീട്ടിലേക്ക് വേറെയും ആയാൽ രണ്ട് തരം അല്ലെ രണ്ട് പണിയായില്ലേ മൊത്തത്തിലങ്ങെടുക്കാം പിന്നങ്ങോട്ട് പൈപ്പെന്തേലും ഇട്ടാ മതിയല്ലോ തോട്ടത്തിക്ക്

അങ്ങനെ ചെയ്യാം നേരെ എടുക്കുമ്പോൾ ഇത്രെയും വലിയ ടാങ്കായകൊണ്ട് വീടിന് വല്ല പ്രശ്നം വരുമോ നേരമൊക്കെയുണ്ട് കുഴപ്പമില്ല അല്ലേ നമുക്ക് വേണമെങ്കിൽ ചുമരിൻ്റെ സൈഡീക്കൂടൊരു പില്ലറ് വെച്ചിട്ട് അത് ബലം കൊടുക്കാമല്ലേ ട്ടാങ്കിക്ക് ആ വീട്ടിലേക്കിനി ആ പോകുന്നുണ്ട് നല്ല നല്ല കെട്ടാണ് കെട്ടിയിരിക്കുന്നത് എന്നാലുമൊരു പേടിയേ ചുമരിനോട് ചേർത്ത് രണ്ട് പില്ലറ് കൊണ്ട് വയ്ക്കാം ആ ആ അതാണ് ആ ഇനിയത് വരുത്തണ്ട മനസമാധാനം കളയണ്ട അത് നിങ്ങളാ നിങ്ങള് സ്ഥിരമായിട്ട് എവിടുന്നാണ് എടുക്കുക നിങ്ങളാ നീ മറ്റേ ആൾടെ അവിടുന്നല്ലേ എടുത്തത് ശിവദവോ എന്താണ് അതിൻ്റെ പേര്

അതെനിക്കറിയാം അപ്പം അം ആ അവിടുന്നൊക്കെ എല്ലാവരും അവിടുന്ന് നമ്മുടെ ആൾക്കാരൊക്കെ അവിടുന്ന് തന്നെയാണ് എടുക്കുക കുഴപ്പമൊന്നുമില്ല ഓ മൂത്തതല്ലേ ആ ചെറിയ ചെക്കനാന്ന് പറഞ്ഞു അത്രേ ആയിട്ടില്ല കച്ചവടമുണ്ടവിടെ നല്ല പോകുന്നുണ്ട് നല്ല സാധനങ്ങള് പോകുന്നുണ്ട് ആ പിന്നെ ബന്ധമുണ്ട് കുറച്ച് ആളുകളായിട്ടെ ഐ ത്രീ ബ്ലെൻഡ് നെക്സ്റ്റ് സൺഡേ സാധനം അവിടുന്നെടുക്കാമല്ലേ അത് ഞാൻ രമേഷൻ്റടുത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മള് നിങ്ങളെത്രയാണ് സാധാരണ ശരി രമേഷൻ്റടുത്ത് പറഞ്ഞിട്ടുണ്ട് അവൻ്റെ ടിപ്പറുണ്ടല്ലോ പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് വിളിക്കാം ഓ ഇന്റോ ഇന്റോ ഞാൻ വാസൻ്റവിടെ പറയാലോ അല്ലേ

ആധാറെടുക്കും അത് എത്ര എത്രയെടുക്കണം എത്രയാണ് നാന്നൂ നാന്നൂറ്റമ്പത് എത്രയാണ് വരുന്നത് ഒരു ചാക്ക് ആ ആ ആ അതാണേലും കുഴപ്പ അതേ പത്ത് പതിനഞ്ചെണ്ണം ഭയങ്കര വർക്കാണ് അല്ലേ മുഴുത്ത ആണോ അത് കുഴപ്പമില്ല അത് കുഴപ്പമില്ല ആ ആ എപ്പം തുടങ്ങും കമ്പി നീ എപ്പഴും എടുക്കണ നേരത്ത് ആണേൽ പോയി എടുത്തിട്ട് വാ നോക്കാം നമുക്ക് ഓക്കെ എന്നാൽ എപ്പം തുടങ്ങും പണിയെപ്പം തുടങ്ങും നീ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് ഇനി ഈ മാസം നടക്കില്ലേ

ആ എന്നാൽ ശരി നീ എന്നാൽ അളവെടുത്തിട്ട് അളവെടുത്ത് രണ്ടിവസം കഴിഞ്ഞ് ചെല്ലുക തുടങ്ങാം എന്നാൽ എടുത്ത് കഴിഞ്ഞിട്ടേ ശരി എന്നാൽ ഓ ശരി